എന്റെ തോട്ടത്തിലുള്ള പൂക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടൂതൽ ഇലച്ചെടികളാണ് ഇലച്ചെടികളാണ് എനിക്ക് വെച്ചു പിടിപ്പിക്കാൻ താല്പര്യം അതുപോലെ പിന്നെ ഹാങിങ് ഉള്ള ഹാങിങ് ചെടികൾ അങ്ങനെയുള്ളതൊക്കെയാണ് എനിക്ക് കൂടുതലും താല്പര്യം അതായത് ഹാങിങ്ങൊക്കെ കുറെ ഇങ്ങനെ താഴെക്കിങ്ങനെ താഴ്ന്നു താഴ്ന്നു വരുമ്പോൾ ഞാനത് വെട്ടിട്ട് വേറെവിടെങ്കിലും നടുമ്പോഴൊക്കെ കുറെ പേർ ആരെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും അതുപോലെ തന്നെ മറ്റേ ചെടികളും അതായത് നമ്മൾ ഇലച്ചെടികളൊക്കെ ഒരു പരിധിയിൽ കൂടൂതൽ വളർന്നാൽ പിന്നെ രസമുണ്ടാവില്ല അപ്പോൾ അത് വെട്ടി മാറ്റിറ്റ് നടുമ്പോൾ ആരേലും ചോദിക്കുവാണെങ്കിൽ അവർക്ക് കൊടുക്കും പിന്നെ പഴങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഏതാന്ന് ഒക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാമ്പഴമാണ് മാമ്പഴം അത് അത്യാവശ്യം നല്ലോണം ഉണ്ടാവും പക്ഷേ ഇപ്പം ഈ വർഷം ഉണ്ടെങ്കിൽ അടുത്ത വർഷം വളരെ കുറവായിരിക്കും അപ്പോൾ ഉള്ളത് ഉള്ളത് പോലെ എന്റെ മക്കൾക്കും എന്റെ വീടിനടുത്തുള്ളവർക്കും കുടുംബക്കാർക്ക് എല്ലാർക്കും പിന്നെ ഇതാക്കീട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരാൾക്ക് ഇത്ര ഒരാൾക്ക് ഇത്രന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും ആ സീസൺ ആവുമ്പം അതായത് ആ സീസണിൽ മാങ്ങ ഉണ്ടോ അത് എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്തു കൊടുക്കും അങ്ങനെയാണ് ഞാൻ സാധാരണ ഗതിയിൽ ചെയ്യാറ്